പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി രണ്ട് പതിമൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തിയാറ് ഇരുപത്തിയഞ്ച് ഒമ്പത് രണ്ടായിരം മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട്